ചെറി ചെറിയൊരു ഗ്രാമമാ ഗ്രാമമാണ് നമ്മുടേത് എൻറ്റേത് എൻ്റെ എൻ്റെ നാട്ടില് ബസ്സ് ബസ്സ് സൗകര്യം കുറവാണ് ബസ്സ് സൗകര്യം കുറവാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ആൾക്കാര് പൈസ സ്വരൂപിച്ചിട്ട് ജനകീയ ബസ്സെന്ന രീതിയിൽ ഇറക്കിയ ബസ്സ് മാത്രമാണ് ആൾക്കാരെയും കൊണ്ട് പോകുന്നത് അത് എല്ലാ സമയത്തുമില്ല അത് രാവിലെയും രാവിലെ എട്ട് മണിക്ക് പിന്നെ പത്ത് മണിക്ക് പിന്നെ പന്ത്രണ്ടരയ്ക്ക് പിന്നെ വൈകുന്നേരം നാലരക്ക് രാത്രി ഏഴ് പത്തിന് അപ്പം അതിനിടയിൽ ഇടയിലുള്ള സമയങ്ങളിലെല്ലാം യാത്ര ചെയ്യുന്നത് ഭയങ്കര യാത്രാ ദുരിതമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ ഇടുങ്ങിയ റോഡായിരിക്കും ഇടുങ്ങിയ റോഡുകളില് പറഞ്ഞാല് രണ്ട് വാഹനങ്ങള് വരുമ്പോൾ ഭയങ്കര പ്രയാസമാണ് വീതി കൂടിയ റോഡുകളല്ല എന്ന് പറഞ്ഞാല് യാത്ര ദുരിതം നല്ലോണമുണ്ട് ആ സമയങ്ങളില് ബസ്സ് കിട്ടാതെ ഒരു ജസ്റ്റൊരു മിന്റ്റ് നേരം നമുക്ക് ബസ്സ് കിട്ടിയില്ലെങ്കിൽ അന്ന് ഞങ്ങൾ എട്ട് മണിക്ക് നിന്നാല് ഞങ്ങൾ ജോ കൃത്യ സമയത്ത് ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല സ്കൂളിൽ പോകുന്നവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല നടക്കണമെങ്കിൽ കുറേ ദൂരം നടന്ന് ക്ഷീണിച്ച് ഓഫീസുകളിൽ എത്തണം ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു അര മണിക്കൂറ് ദൂരമുണ്ട് അരമണിക്കൂറ് ദൂരമുണ്ടെന്ന് പറഞ്ഞാല് ബസ്സിന് ട്രെയിന് പോകുന്നുണ്ടെൽ നിങ്ങള് അരമണിക്കൂറ് നേരത്തെ പോകണം അതിനിടയിൽ ട്രെയിനിൻ്റെ സമയത്തും ബസ്സ് ഉണ്ടെങ്കിൽ നല്ലൊരു ഉപകാരമായിരുന്നു രാവിലെ എട്ട് മണിക്ക് ബസ് ഉള്ളു അപ്പോൾ അതിന് നേരത്തെ ഞങ്ങൾക്ക് യാത്ര ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കില് ബസ്സ് ആ സമയത്ത് ബസ്സില്ല എല്ലാ സങ്കടവും സഹിച്ചവിടെയെത്തി ട്രെയിനിൽ കയറിയാലോ ട്രെയിനിൽ തിരക്ക് ഭയങ്കര തിരക്കായിരിക്കും തിരക്കായിരിക്കും എന്ന് പറഞ്ഞാല് രാവില ഏഴരക്കൊരു ട്രെയിൻ വന്ന് കഴിഞ്ഞാൽ പിന്നെ എട്ടേ മുക്കാലിനേ ഉള്ളൂ എട്ടേ മുക്കാലിന് ഒമ്പത് മണിക്ക് ഒമ്പതരക്ക് അടുപ്പിച്ച് ഉണ്ട് പിന്നെ പന്ത്രണ്ടരക്കാണ് ട്രെയിൻ ട്രെയിൻ പിന്നെ ട്രെയിൻ സമയം തന്നെ പറഞ്ഞാല് ഇപ്പോൾ വൈകുന്നേരം ഞങ്ങളുടെ നാട്ടിലേക്ക് ഒര് പാസ്സഞ്ചർ ബസ്സ് പാസ്സഞ്ചർ ട്രെയിനേ ഉള്ളൂ ആ ട്രെയിന് ഞങ്ങൾ പോകണമെങ്കിൽ ട്രെയിനിൽ പോകണമെങ്കിൽ രാ ട്രെയിനില് പോകണമെങ്കിൽ രാവിലെ എട്ടേ മുക്കാലിന് ആ പാസ്സഞ്ചറ് ഉണ്ട് മംഗലാപുരത്തേക്ക് പോകുന്നത് മംഗലാപുരത്ത് നിന്ന് തിരിച്ച് വരുന്നത് അഞ്ച് മണിക്ക് കാസറഗോഡെത്തുമ്പോൾ ആറ് മണിയാവും

എല്ലാ ട്രെയിനുകളും അവിടെ നിർത്തില്ല അപ്പം എല്ലാ ട്രെയിനുകളും അവിടെ നിർത്തില്ല യാത്ര ഇപ്പോൾ ഒരു ട്രെയിനും നമ്മൾ ഉച്ചയ്ക്ക് ഇപ്പം ഒരു ഇപ്പോൾ പയ്യന്നൂരിൽ നിന്ന് കാസർഗോഡേക്ക് ഒരു ട്രെയിനിൽ നമ്മൾ യാത്ര ജോലിക്ക് വരുന്നുണ്ടെങ്കിൽ രാവില ഏഴ് ഇരുപതിനുള്ള ഒര് ട്രെയിന് ഞങ്ങൾ കയറിയാല് ഇവിടെ എത്തും അത് കഴിഞ്ഞിട്ട് ബസ്സ് ട്രെയിൻ കുറവാണ് ട്രെയിൻ കുറവാണ് പിന്നെ ഒരൊമ്പതര വരെ ട്രെയിന് ഉണ്ട് പിന്നെ ട്രെയിനില്ല പിന്നെ ഞങ്ങൾ പന്ത്രണ്ടരക്കത്തെ ഇൻറ്റർസിറ്റിക്ക് ഇവിടുന്നങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളു ഓ ഒരുപാട് മണിക്കൂറ് ട്രെയിൻ സമയം അവിടെ ഇല്ല അതിനിടയിൽ ഒരു ട്രെയിനിടണം വൈകുന്നേരമെന്ന് പറഞ്ഞാല് മൂന്നേ മൂന്നേ അഞ്ചിനൊരു ട്രെയിൻ കഴിഞ്ഞാൽ പിന്ന അഞ്ചേ മുപ്പത്തഞ്ചിനെ സൂപ്പർ ഫാസ്റ്റെത്തുകയുള്ളു അത്ര സമയം വരെ നമ്മള് ഒര് സ്ഥലത്ത് പോകണമെങ്കിൽ രണ്ട് രണ്ടരമണിക്കൂറവിടെ വെയ്റ്റ് ചെയ്യണം ടൈമ് ട്രെയിനിൻ്റെ ടൈമ് ട്രെയിനും ട്രെയിന് പിന്നെ ട്രെയിൻ ദുരന്തം എന്ന് തന്നെ പറയാം ട്രെയിൻ യാത്ര ദുരന്തം യാത്രാ ദുരന്തമെന്ന് പറഞ്ഞാല് ട്രെയിനില് എന്നാ സമയം ട്രെയിൻ സമയം കുറവല്ലെ ട്രെയിൻ സമയം കുറവ് പറഞ്ഞാലെല്ലായ്പ്പോഴും ട്രെയ്നില്ല ഒര് ഒരു മണിക്കൂറൊരു മണിക്കൂറ് ഇടവിട്ടിട്ട് ട്രെയ്നുണ്ടങ്കിൽ ഇത്ര ദുരന്തമുണ്ടാവില്ല ഇത് ഭയങ്കര തിരക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റില് തിരക്ക് തിക്കും തിരക്കും തിക്കും തിരക്കെന്ന് പറഞ്ഞാൽ അതിനിടയിൽ കുറെ ആൾക്കാർക്ക് ക്ഷീണമാകും സീറ്റ് ഉണ്ടാവില്ല യ്യോ അവസ്ഥ ഒര് ഭയങ്കര യാത്രാ ദുരന്തമാണ് പിന്നെ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ബസ്സ് സൗകര്യം ഇല്ല ഇപ്പോൾ ഒര് നാട്ടില് നമ്മൾ പോയാല് അപ്പോൾ ഈ നമ്മൾ ഒര് നാട്ട് പോകുവ ആ നാട്ടിൽ നിന്ന് അവരുടെ ഉദാഹരണത്തിന് ചെറുവത്തൂര് പടന്ന ചെറുവത്തൂര് നിന്ന് പടന്നയിലേക്ക് ബസ്സുണ്ട് അവിടുന്നു ഉള്ളൂട്ടി പോകണമെങ്കിൽ ബസ്സില്ല ബസ്സില്ലാന്ന് പറഞ്ഞാലവിടുത്തെ റോഡുകള് ചെറിയ റോഡുകളാണ് തീരദേശ റോഡുകള് തീരദേശ റോഡുകളില് ബസ്സ് സൗകര്യം കൊടുക്കണം തീരദേശ റോഡുകളില് കുറച്ച് സ്ഥലം നല്ലോണം വീതിയോട് കൂടിയുള്ള റോഡാക്കി അവിടുത്തേക്കും ഇങ്ങനെ ബസ്സിടണം ബസ്സ് സൗകര്യം കൊടുത്തിട്ട് അവിടുത്താൾക്കാർക്ക് ഇപ്പം എല്ലാ ആൾക്കാർക്കും വാഹനം വാങ്ങാൻ പറ്റില്ല അപ്പോൾ അവരെന്താകും നടക്കുക തന്നെ വേണം നടക്കുക തന്നെ വേണമെന്ന് പറഞ്ഞാല് എത്ര മണിക്കൂറവര് നടക്കണം രാവിലെ ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റേഷനിൽ ട്രെയിനില് യാത്ര ചെയ്യണമെങ്കില് ആ ട്രെയ്നിലെത്തപ്പെടണങ്കില് ഒരു മണിക്കൂറ്കള് യാത്ര ചെയ്തിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പം അവരുടെ യാത്ര ദുരന്തം ഒഴിവാക്കണം ആ യാത്ര യാത്ര ദുരന്തമെന്നൊന്ന് പറയുന്നത് തന്നെ വലിയൊരു വിഷയമാണ് വിഷയമാണെന്ന് പറഞ്ഞാല് ഉൾപ്രദേശങ്ങളിലേക്ക് യാത്രാ സൗകര്യം കുറവാണ് അത് അത് നേരാക്കി അത് നേരാക്കിയിട്ടെന്ന് പറഞ്ഞാല് അത് പരിഹരിച്ചിട്ട് തരണം യാത്രാ ദുരന്തം ഇടുങ്ങിയ റോഡുകളില് ഇപ്പം രണ്ടാൾക്കാറ് ഇപ്പോൾ ഒരു വണ്ടി അതിലെ വന്നു ഒരു വണ്ടി ഇതിലെ വന്നു അതില് പിന്നെ നമ്മൾ നടക്കല് നടക്കാൻ പറ്റില്ല ഇടുങ്ങിയ റോഡിലൂടെ അങ്ങനെ നടക്കല് അതാണ് ഉൾപ്രദേശങ്ങളിലെ റോഡുകൾ ഇടുങ്ങിയ റോഡായിരിക്കും മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട പറയണ്ടാന്ന് പറഞ്ഞാൽ വെള്ളം തെറിപ്പിക്കും കാൽനട യാത്രക്കാരുടെ അവസ്ഥ മോശമായിരിക്കും വെള്ളം തെറിപ്പിക്കും പിന്നെന്ന് പറഞ്ഞാല് കുഴി അവിടെ ഇവിടേയും കുഴി ആയിരിക്കും ആ കുഴിയിൽ വെള്ളം നിൽക്കും അതാ ഒരു സ്കൂട്ടർ പോയി തെറിപ്പിച്ചു വെള്ളം തെറിപ്പിച്ചു വെള്ളം തെറിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ആ ഡ്രസ്സ് വീട്ടിൽ പോയി മാറ്റിയിട്ട് നമുക്കൊരു സ്ഥലത്തെത്തപ്പെടാൻ പറ്റില്ല ആ എല്ലായിടത്തും വികസനം വേണമെന്നാന്ന് എൻറ്റഭിപ്രായം എൻറ്റ അഭിപ്രായമെന്ന് പറഞ്ഞാല് വികസനം വികസനമെന്ന് പറഞ്ഞാല് ഉൾപ്രദേശങ്ങളില് വികസനം ഉണ്ടാവണം മറ്റേ ടൗണുകളിൽ മാത്രം വികസനം ഉണ്ടായാൽ പോര ഉൾപ്രദേശങ്ങളിൽ വികസനമുണ്ടാകണം അപ്പോഴല്ലേ ആൾക്കാർക്ക് പിന്നെ വികസന ത്തിൻ്റെ വികസനം എന്താണെന്ന് മനസ്സിലാവൂ ഉൾപ്രദേശങ്ങളില് കൃത്യ സമയത്ത് ബസ്സ് ബസ്സ് ബസ്സ് സൗകര്യം കൊടുക്കണം ട്രെയിനില് ട്രെയിൻ ട്രെയിൻ ട്രെയിനില് മണിക്കൂറ് ഓരോരോ മണിക്കൂറ് ഇടവിട്ട് ഇടവിട്ട് ട്രെയിന് ഉണ്ടെങ്കിൽ യാത്ര ദുരന്തമുണ്ടാകില്ല ഒരു മണിക്കൂറ് ഒരുമണിക്കൂറ് ഇടക്ക് ഇടവിട്ടെടവിട്ട് ട്രെയിൻ വേണം ഇത് രാവില രാവില തൊട്ട് രാവിലെ തൊട്ട് പത്ത് മണിവരെ പിന്നെ പത്ത് മണികഴിഞ്ഞാൽ പിന്നെ ട്രെയിനില്ല പിന്നെ മൂന്ന് മണിക്കൂർ അവിടെ നിന്ന് ഉച്ചക്ക് ഉച്ച തൊട്ട് വൈകുന്നേരം വൈകുന്നേരമെന്ന് പറഞ്ഞാല് രണ്ടേ ഇരുപതിനൊരു ട്രെയിന് ഉണ്ടാകും പിന്നേ മൂന്ന് അഞ്ചിനൊരു ട്രെയിൻ പിന്നെ ഞങ്ങള് വീണ്ടും അഞ്ചര വരെ അഞ്ചര വരെ നിൽക്കണം ഇടവിട്ട് ഇടവിട്ട് അഞ്ചരക്കൊരു ട്രെയിൻ ആറ് മണിക്കൊരു ട്രെയിൻ ആറേ പത്തിനൊരു ട്രെയിൻ ഏഴേ ഇരുപത്തിനൊരു ട്രെയിൻ പിന്നെ ട്രെയിനേ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ ആ ദുരന്തം ഒഴിവാക്കി തന്നാല് ജനങ്ങൾക്ക് ഭയങ്കര ജനങ്ങൾക്ക് അതൊരു ആശ്വാസമായിരിക്കും യാത്രാ ദുരന്തം ഇത് ഒര് ഒര് ട്രെയിൻ ലേയ്റ്റാണെങ്കില് മറ്റേ ട്രെയിൻ ലേയ്റ്റ് യ്യോ ലേറ്റാകുന്ന അവസ്ഥ പിന്നെ എന്തെങ്കിലും വ്യതിയാനം കൊണ്ടായിരിക്കും പിന്നെ ട്രെയിൻ ട്രെയിനിൽ വരുമ്പോൾ ട്രാക്കിനെന്തെങ്കിലും ഇതായിട്ടുണ്ടോ അങ്ങനെ ലേറ്റാകുന്നതിന് പറയുന്നില്ല ഈ ട്രെയിൻ ട്രെയിൻ്റെ സമയം ഒരു മണിക്കൂറ് ഒരു മണിക്കൂറ് കൊടുത്താല് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും ബസ്സും അങ്ങനെ ബസ്സിപ്പം നമ്മൾക്ക് റെയിൽ വേ സ്റ്റേഷനില് എത്തണമെങ്കില് ബസ്സ് സൗകര്യമുണ്ടായിരിക്കണം മണിക്കൂറുകളെടവിട്ടെടവിട്ട് ബസ്സ് സൗകര്യമുണ്ടായിരിക്കണം ബസ്സ് സൗകര്യമുണ്ടായിരിക്കണം പിന്നെ നല്ല വീതി കൂടിയ റോഡായിരിക്കണം ഇടുങ്ങിയ റോഡുകളിലൂടെയൊന്നും ബസ്സ് സൗകര്യങ്ങളൊണ്ടാവില്ല വികസനം വേണമെന്നാണ് പറയാനുള്ളത്